ആ ചേട്ടാ സ്വിഗ്ഗിയല്ലേ ഞാൻ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ആ ഇവിടെ വടക്കഞ്ചേരിയിൽനിന്നും ചെറിയൊരു പ്രശ്നമുണ്ട് അത് ആ ഫുഡിൻ്റെ ഡെലിവെറി ചെയ്യുന്ന അഡ്രസ്സ് ഒന്ന് മാറ്റാൻ പറ്റുമോ കാരണം അത് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ആ അഡ്രസ്സിലേക്ക് ആക്കാൻ എന്തെങ്കിലും പറ്റുമോ അതെ അല്ല ഒരു മണിക്കൂറിനുളളിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞത് പക്ഷെ ഡെലിവറി ചെയ്യേണ്ട ആ പഴയ അഡ്രസ്സല്ല ഒരു പുതിയ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അതിനു എന്താണ് ചെയ്യേണ്ടത് കാരണം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അവിടേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആ വടക്കാഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ ഒരു ആലത്തൂരിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആലത്തൂരാണ് ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഫുഡ് എത്തിക്കാൻ പറ്റുമോ പഴയ അഡ്രസ്സൊന്നു മാറ്റണം എന്നാൽ ആ ചേട്ടാ ആ അഡ്രസ്സിലേക്ക് വന്നാൽ മതി അവിടെയാണ് ഞങ്ങൾ ഇനി അവിടെ ഉണ്ടാവുക അപ്പം എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു ഇനിയിപ്പോൾ പഴയ അഡ്രസ്സിലേക്ക് വന്നു വെച്ചാൽ അവിടെ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ വരുന്ന ആളുടെ നമ്പർ തന്നാൽ ഞാൻ വിളിച്ച അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം അപ്പം അങ്ങോട്ട് വന്നാൽ മതി ആ അതിനെന്തെങ്കിലും അഡിഷണൽ പേയ്മെൻ്റ് വേണമെങ്കിൽ അത് നമ്മൾ റെഡി ചെയ്യാം അത്രേ ഉള്ളൂ ചേട്ടൻ ഒന്ന് സംസാരിച്ചിട്ട് എന്നാൽ ഇതാക്കി തന്നാലും മതി ആ ശരി ശരി ചേട്ടാ ശരി